ദേ ഇവിടെ വീടിൻ്റെ വർക്ക് ആയിട്ട് ഇവിടെ നിൽക്കുവായിരുന്നു വീടിൻ്റെ കാര്യങ്ങൾ നോക്കി വർക്ക് ആണ് വർക്കിലാ ദേ കഴിയാറാവുന്നു ഉടനെ തന്നെ തീരും ഒരു മാസം കൂടെ എന്തോ കുറച്ച് നാളുംകൂടെ ഒരു ഒന്നൊന്നര മാസം കൂടെ ഇനി ചെറിയ ചെറിയ വർക്കുകളും കൂടെയുള്ളൂ വയറിങ്ങും സീലിങ്ങും മറ്റ് പെയ്ൻ്റിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് ഇപ്പം ഒരു വലിയ വയറിങ്ങിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് പാവം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതാണ് അത് കഴിഞ്ഞ് സീലിങ്ങും പെയിൻ്റിങ്ങ് ഒക്കെ ചെയ്യാം എന്നോർത്താണ് ഇരിക്കുന്നത് ആ ആ ആ ആ അന്നേരം അവിടുന്ന് ഇങ്ങോട്ട് മാറാം എന്നോർത്താ ഒരു ഫങ്ങ്ഷൻ ചെറിയൊരു ഫങ്ഷനൊക്കെ വെച്ചേ

ഇപ്പം തീരാറാകുന്നെ ഉള്ളൂ

ആ ആ ആ ആ തൊട്ടടുത്താണല്ലോ കേൾക്കുന്നുണ്ട് ഓ ആണല്ലേ ആ ആ ആ ആണോ എക്സാമ് തുടങ്ങാറായോ അവൾക്ക് ആണല്ലേ ഓ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എന്നത്തേനാ തീരുന്നത് ഇരുപത്തൊമ്പത് ആകുമ്പത്തേനല്ലേ അത്രക്ക് ബുദ്ധിമുട്ടാണേൽ നമുക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ സൗണ്ട് ഇല്ലാത്ത വർക്കിലേക്ക് ആക്കാം ആക്കാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ പണി അത്രയും ദിവസം നിർത്തി വെച്ചാൽ നമുക്ക് നഷ്ടമാണേ അങ്ങനെയാണേൽ ഇപ്പം കട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഈ സൗണ്ടും വയറിങ്ങിൻ്റെ ഡ്രില്ലിങ്ങിൻ്റെ ഒക്കെ സൗണ്ടേ അങ്ങനെയാണേൽ അങ്ങനെയാണേൽ ഞാൻ പയ്യെ അവരോട് പെയിൻ്റിങ്ങും സീലിങ്ങ് കാര്യങ്ങളൊക്കെ എങ്കിൽ ചെയ്തുവിടാൻ പറയാം അല്ലെങ്കിൽ ഇപ്പം വിഷയം എന്നാ എന്ന് വെച്ചാൽ ഇപ്പം പത്താം തീയതിയല്ലേ എക്സാം തുടങ്ങുന്നത് ഇന്നിപ്പം പത്തല്ലെ നാളെ തുടങ്ങില്ലേ ഇരുപത്തൊമ്പതാം തീയതി അത്രയും ദിവസം നമ്മൾ പണി നിർത്തിയിട്ടാൽ ഇപ്പോൾ വെറുതെ നമ്മൾ കാശ് കൊടുക്കുന്നാവൂല്ലേ നഷ്ടമാവുമല്ലോ എന്നാൽ ഞാനെങ്കിൽ ഒരു സൗണ്ട് ഇല്ലാത്ത രീതിയിൽ എങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കാം എക്സാമ് അല്ലേ അവരും പഠിക്കേണ്ടേ ആ ആ അങ്ങനെയാണേൽ ആ അതെയതെ കാണും അങ്ങനെയാണേൽ നിർത്തി വക്കാണ്ട് തന്നെ അവരോട് കാര്യം പറയാം എന്നിട്ട് എളുപ്പം ഉള്ള രീതിയിൽ സൗണ്ട് കേൾക്കാത്ത രീതിയിലുള്ള പണി എങ്കിൽ ചെയ്യിപ്പിക്കാം ആ അതെ അതെ അല്ലേൽ ഇപ്പം നിർത്തി വച്ചേക്കുന്ന ഇത്രായിരം രൂപ മുടക്കി ഉടനെ ചെയ്തും തീർക്കണമല്ലോ ഇപ്പം ഇത്രയും ദിവസത്തിൻറ്റെ പണി കാരണം മാറ്റി വെച്ച് ചെയ്യിപ്പിക്കുവാണേൽ അത് നമുക്കും വലിയ കുഴപ്പം ഇല്ലാതെ നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാണ്ടും വരികയും ചെയ്യും ആ എന്നാൽ അങ്ങനെ ചെയ്യാം ആ ആണാണ് ആ ആ നന്നായി അങ്ങനെയാണേൽ കുഴപ്പം ഇല്ല ഞാൻ അന്നേരത്തേന് ഞാൻ സൗണ്ട് കുറച്ചുള്ള പണി ചെയ്യിപ്പിച്ചോളാം അവരെയുംകൊണ്ട് പെയ്ൻ്റിങ്ങും സീലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ച് വിട്ടോളാം ആ ആ ആ ഓക്കേ അന്നത്തേന് എങ്കിൽ വേറെ മാറ്റിച്ചോളാം ആ ഓക്കേ ഓക്കേ എന്നാൽ അങ്ങനെ ചെയ്യിപ്പിക്കാം എന്നാൽ കുഴപ്പം ഇല്ല അന്നേരത്തേനും ചെയ്യിപ്പിച്ചോളാം എങ്കിൽ അന്നത്തെ എക്സാം തീരുമ്പത്തേന് ഞാൻ ഇത് മാറ്റിക്കോളാം ആ ഓക്കേ എന്നാൽ എന്നാൽ ശരി എന്നാൽ ആ ഓക്കെ എന്നാൽ